ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം നേടുക അതുപോലെ തന്നെ തൊഴില് നേടുക അല്ലെങ്കിലൊരു വിദ്യാഭ്യാസം നമ്മള് നേടിക്കഴി വിദ്യാഭ്യാസം ഇന്നത്തെ കാലത്ത് അവസരങ്ങൾ വളരെ ഒട്ടനവധിയാണ് കാരണം വിദ്യാഭ്യാസത്തിൻ്റെ നമുക്കിപ്പോള് ഒരു സ്ഥലത്തുനിന്നു മറ്റൊരു സ്ഥലത്തേക്കു നമ്മൾ സഞ്ചരിക്കുമ്പോള് വിദ്യാഭ്യാസം നേടുക അല്ലേ തൊഴിൽ അധിഷ്ഠിതമായ പരിശീലനം നേടുവാനുള്ള അവസരങ്ങള് യ ധാരാളമാണ് പക്ഷേ അതിലെ സത്യസന്ധതയെക്കുറിച്ച് നമ്മള് പരീ പരിശോധിച്ചറിയുമ്പോള് അവിടെയാണ് നമ്മള്ക്കു കൂടുതല് തെറ്റുകൾ പറ്റുന്നത് കാരണം ഇപ്പോള് നമ്മള് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്കു യാത്ര തിരിക്കുകയാണെങ്കില് ഓരോ ഇലക്ട്രിക്ക് പോസ്റ്റുകളിലും അതുപോലെ ഓരോ ജംഗ്ഷനുകളിലും ഒരുപാട് വിദ്യ അല്ലെങ്കിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകളെപ്പറ്റിയുള്ള പരസ്യങ്ങള് ധാരാളമായിട്ട് കാണാം എന്നാൽ നമ്മളതില് നേടുകയും അല്ലെങ്കില് അതിൽ നമ്മൾ എത്തിപ്പെടുകയും നമ്മള് അവര് പറയുന്ന തുക നമ്മളവിടെ അടച്ച് അതിലേക്കു നമ്മള് ചെല്ലുകയും ചെയ്ത് കഴിഞ്ഞാലും നമ്മള്ക്ക് അതിനു ശേഷമെന്താണെന്നുള്ളൊരു കൊസ്റ്റിൻ മാർക്കാണ് അല്ലെങ്കില് അപ്പോള് ഈ അതല്ലാതെ ഒരുപക്ഷേ നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ എന്താ നമുക്ക് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആധിയാണ് നമുക്കതിൽ വിജയിക്കുമോ വിജയിക്കുവാനല്ല ഈ നമ്മളത് നേടിക്കഴിഞ്ഞാൽ നമുക്കൊരു ജോലി ലഭിക്കുമോ അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റിനൊരു പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ അതിന് പ്രാധാന്യമുണ്ടോ അല്ലെങ്കിൽ അതിനൊരു അടിസ്ഥാനമുണ്ടോ അല്ലെങ്കിൽ ഇത് സ്വീക സ്വീകാര്യമാണോ എന്ന നമ്മുടെ ആധി അതില് അതിനു കുറവു വരാൻ സമ്മതിക്കില്ലായിരിക്കും എന്നാൽ പി എം കെ വി പി വൈ വഴി പരിശീലനം പൂർത്തിയാക്കിയാൽ നമ്മളെ എപ്പോഴും ആവേശഭരിതരാണ് കാരണം സർക്കാർ അധിഷ്ഠിതമായ ഒരു കോഴ്സ് നമ്മൾ നേടുകയും അതിൽ നിന്ന് നമുക്ക് ലഭിക്ക ഒത് നമുക്ക് അതിൽ സർട്ടിഫിക്കറ്റ് നേടുക അത് എന്ത് കോഴ്സുമായിക്കോട്ടെ നമ്മളെവിടെ പഠിക്കുന്നു അല്ലെങ്കില് നമ്മളൊരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മളൊരു സംഭവം പഠിച്ചെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടി അല്ലെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുക എന്നുള്ളതായിരിക്കണം അതിലൊന്നാമത്തെ കേസ് കാരണം നമ്മുടെ സർട്ടിഫിക്കറ്റ് നേടിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ വാല്യൂനെപ്പറ്റി നമ്മള് അതതു നമുക്ക് നമ്മള് നേടിയ വിദ്യക്ക് നമ്മുടെ കൈകളിലേക്കുള്ളൊരു തെളിവാണ് ഈ സർട്ടിഫിക്കറ്റെന്നു പറയുന്നത് നാളെ വേറെ നമ്മളൊരു ജോലിക്കുവേണ്ടിയോ അല്ലെങ്കില് ഓക്കെ നമ്മളിതു പഠിച്ചു എന്താണിതിനൊരു പ്രൂഫ് നമ്മളിത് പഠിച്ചൂന്നുള്ളയിന് നമ്മളോട് ആ ഇതിനെപ്പറ്റി ചോദ്യങ്ങൾ ചോദിക്കുന്നതിനുപരി നമ്മളതിനെപ്പറ്റി തുറന്നു സംസാരിക്കുമ്പോള് നമക്കൊരു സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുക എന്നുള്ളതാണ് അതിന്റകത്തേറ്റവും നമ്മളൊരു തൊഴിലവസരത്തിനു ചെന്നു കഴിഞ്ഞാല് ഈ സർട്ടിഫിക്കറ്റങ്ങു വെച്ച് കഴിയുമ്പോള് ആ ഓക്കെ ആ ഓക്കെ നിങ്ങളതിൻ്റെ യോഗ്യൻ നമ്മുടെ നമ്മുടെ യോഗ്യത തെളിയിക്കാൻ നമ്മുടെ യോഗ്യത തെളിയിക്കാൻ നമുക്കെന്ത് യോഗ്യതയാണ് നമ്മുടെ സാമർഥ്യത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എ അത് തെളിയിക്കാനുള്ളൊരു ഇതാണ് അത് അത് നമ്മള് കാണിക്കാനുള്ള നമ്മുടെ കയ്യിലൊരു തെളിവുതന്നെയാണ് നമ്മള് പറയുന്നത് ഈ സർട്ടിഫിക്കറ്റെന്ന് പറയുന്നത് അതുപോലെ തൊഴിലധിഷ്ഠിത കോഴ്സ്കൾ ഇന്നത്തെ അല്ലെങ്കിൽ ക്ലാസുകൾ ഇന്നത്തെ കാലത്ത് ഞാന് പറഞ്ഞു ഞാൻ ആദ്യംതന്നെ സൂചിപ്പിച്ചതുപോലെ പഠിക്കാനുള്ള അവസരങ്ങൾ വളരെ വിരള വിരളമല്ല ഇന്നത്തെ കാലത്ത് അനവധിയാണ് ഒരാള്ക്കൊരു പഠിക്കണമെന്നുണ്ടെങ്കിൽ അവസരങ്ങൾ ഒരുപാടാണ് അവസരങ്ങള് ഒരുപാടാണ് പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസം ഒരു കച്ചവടത്തിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തില് എനിക്കിത് എനിക്കു തോന്നുന്നു ഒട്ടുമിക്ക വിദ്യ പ്രദാനം ചെയ്യുന്ന സ്ഥാപനങ്ങള് ഞാൻ ഗവണ്മെൻറ്റ് അല്ലെ പി എം കെ വൈ വൈ അല്ല ഉദ്ദേശിക്കുന്നെ അതിലുപരി നമ്മളുക്ക് ചുറ്റുപാടും കാണുമ്പോള് അല്ലെ കിട്ടുന്ന ഞാന് പറഞ്ഞ ഒരുപാടുണ്ട് ഒന്നിൽ ഒരുപാ ഒരു ഒതിര് ഒന്നിനുള്ള അവസരം ഒന്നിന് ഒന്നിലധികം ഉണ്ടെങ്കിൽ ആ നമ്മള് പറ്റിക്കപെടുവാനും നമ്മള് തിരസ്കരിക്കപ്പെടുവാനുവുള്ള അവസരം അതുപോലെതന്നെ വന്നുകൊണ്ടു കാരണം തട്ടിപ്പിൻറ്റൊരു സമൂഹമാണല്ലോ ഇന്നത്തെ സമൂഹം അപ്പോള് വിദ്യാഭ്യാസം ഇന്നൊരു കച്ചവടമാണ് അതിലുപരി ഈ വിദ്യയുടെ മറവിൽ ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്ന ഇന്നത്തെ കാലത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്തെന്ന് വച്ചുകഴിഞ്ഞാല് സർക്കാരിൻ്റെ അല്ലെങ്കിൽ തൊഴിലധിഷ്ഠിതമായ സർക്കാർ സർട്ടിഫിക്കറ്റുള്ളൊരു കോഴ്സ് പഠിക്കുകയും അതുവഴി മുന്നോട്ട് നീങ്ങുകയും ചെയ്യുമ്പോള് അല്ലെങ്കില് അതിൽ നമുക്കർബി നമ്മള് അല്ലെങ്കില് നമ്മളീ പി എം കെ വൈയുടെ ഉദാഹരണത്തിന് പി എം കെ വൈയുടെ സർട്ടിഫിക്കറ്റുമായിട്ട് നമ്മള് മുന്നോട്ട് പോകുമ്പോള് ഓക്കെ യ നമ്മള് തിരിച്ചറിയുന്നു ഓക്കെ ഓക്കെ ഇനി നമ്മുടെ കയ്യിലിരിക്കുന്നതിനൊരു ഒരു വാല്യൂവുണ്ട് ഒരു മൂല്യമുണ്ട് ആ മൂല്യത്തിൽ താദാത്മ്യപ്പെടുവാൻ മറ്റൊന്നും അവസരമില്ല നമ്മുടെ സാമർത്യഥ്യമെന്നും നമ്മൾ പഠിക്കുന്ന വിദ്യയിൽ മാത്രം അധിഷ്ഠിതമല്ല അല്ലെങ്കില് വിദ്യ എന്നു പറയുന്നതൊരു പുസ്തകം വായിച്ചു പഠിക്കുന്നത് മാത്രമല്ല അല്ലെങ്കില് ഒരു വിദ്യ നേടുക അല്ലെങ്കില് സാമർഥ്യം നേടിയെടുക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു വിദ്യ എന്നു പറയുന്നെ ഒരു ഒരു പക്ഷേ എഴുത്തും വായനയും അല്ലെങ്കിൽ സ്പൂൺ ഫീഡിങ്ങ് പക്ഷേ സാമർഥ്യം അതിനാണ് നമ്മള് തൊഴിലധിഷ്ഠിത കോഴ്സുകൊണ്ടുദ്ദേശിക്കുന്ന സാമർഥ്യം അപ്പോള് സാമർഥ്യം നേടിയെടുക്കുമ്പോള് അല്ലെങ്കിൽ സാമർഥ്യം നേടിയെടുക്കുമ്പോള് അല്ലെങ്കിൽ അത് അത് സർക്കാർ സത്യ മൂല്യമുള്ളൊരു സർട്ടിഫിക്കറ്റ് കൂടിയാവുമ്പോള് തൊഴിലിലേക്ക് കയറുമ്പോള് നമുക്ക് നമ്മള്ക്ക് നമ്മള് മുൻപന്തിയിലാണ് ഓക്കെ ഓ ഓക്കെ എൻ്റെ യോഗ്യത എന്തെന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റും അല്ലെങ്കില് യോഗ്യതയാണ് പി എം കെ വൈ തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളൊരർത്ഥംകൂടി അതിലുണ്ട് അപ്പോള് ഇത്തരം ഒരു വിജയകരമായി പൂർത്തിയാക്കി നമ്മള് ഒരു തൊഴിലവസരത്തിനു മുന്നോട്ട് ചെല്ലുമ്പോള് അല്ലേ അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഞാന് വീണ്ടും ഊന്നി ഊന്നി പറയുകയാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് സുരക്ഷിതമാക്കാന് അല്ലെങ്കില് നമ്മള് എന്ത് കോഴ്സ് പഠിച്ചാലും ഈ ഞാൻ ചുരുക്കിയാണ് എന്ത് കോഴ്സ് പഠിച്ചാലും അതിനു സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക അതുപോലെതന്നെ ആ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ള അല്ലേ മൂല്യമുള്ളതാണെന്ന് അതിനുശേഷം നമ്മൾ ഉറപ്പുവരുത്തുക അതുപോലെ സർക്കാർ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇതിലുള്ളൊരു സർട്ടിഫിക്കറ്റാണെങ്കിൽ അത് പി എം കെ വൈ ഉദാഹരണത്തിനു പി എം കെ വൈ പോലൊരു സർട്ടിഫിക്കറ്റാണെങ്കിൽ അതിന് മൂല്യം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അത്തരത്തിൽ നമ്മളിത് സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുക നന്ദി